കിണറ്റിൽ നിന്നും വെള്ളം സാധാരണ നമ്മൾ എടുക്കുവാറുണ്ടായിരുന്നത് നമ്മൾ തൊട്ടി ഉപയോഗിച്ച് കോരിയെടുക്കുമായിരുന്നു നമ്മൾ ഇത് കപ്പി കയറുപയോഗിച്ചും കോരി എടുക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് ആധുനിക യുഗത്തിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ മോട്ടോർ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അത് മോട്ടറ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനൊരു ഫുട് വാൽവ് വേണം ഫുട് വാൽവ് കിണറിൻ്റെ അടിയിലേക്ക് വെള്ളം അതായത് വറ്റിയാൽ ഒരുമാതിരി ഉണക്ക് കാലത്ത് വെള്ളം വറ്റി വരികയാണെങ്കിലും അതിൻ്റെ താഴെയിലിരിക്കും എത്തത്തക്ക വിധത്തിലുള്ള താഴേന്ന് നമുക്ക് വെള്ളമെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുട് വാൽവ് നമ്മൾ ഉപയോഗിക്കണം ഇടണം ഒരു നല്ല നമ്മൾ മോട്ടോർ സെലക്ട് ചെയ്യുമ്പോൾ കിണറുകളുടെ പണ്ടെോക്കെയുള്ള വലിയ കൽക്കെട്ടുള്ള കിണറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ ഇത് കൂടിയ ഒന്നിൻ്റെയൊക്കെ മോട്ടറുപയോഗിക്കാം എന്നാലും അത് സാധാരണ ഒരു കിണറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരരയുടെ മോട്ടറുപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ കിണർ ഇടിഞ്ഞു പോകുന്നതിനെക്കാട്ടിയും സാധ്യതയുണ്ട് അപ്പം കിണറിൻ്റെ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ നമുക്ക് എലക്ട്രിക്കൽ മോട്ടോർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം മോട്ടർ നമ്മളെപ്പോഴും അല്പം ഉയർത്തി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം അതാണ് എപ്പോഴും അമ്മ തറയിൽ നിന്ന് അല്പം ഉയർത്തി തന്നെ മോട്ടോർ വെക്കണം അതുപോലന്നെ മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ സ്വിച്ച് പവർ സ്വിച്ചായിരിക്കണം ആവശ്യം സാധാരണ പ്ലഗ്ഗിൽ നമുക്ക് മോട്ടർ കുത്താനായിട്ട് സാധിക്കില്ല അപ്പം നമുക്ക് പവറുള്ള നല്ല സോക്കറ്റ് വേണം അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പവർ പ്ലഗ് വേണം നമ്മളവിടെ ഉപയോഗിക്കാൻ മോട്ടറ് എപ്പഴും കൈ നനയാത്ത രീതിയിൽ അത് ഓൺ ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് വെള്ളം തീർന്നാൽ ടാങ്കിലെ വെള്ളം തീർന്നാൽ ഒക്കെ പെട്ടെന്ന് ഓൺ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനമാണ് അതായത് മഴയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് മഴ കൊള്ളാത്ത തരത്തിലുള്ള തരത്തിൽ അതിനെ മോട്ടറ് ഫിറ്റ് ചെയ്യണം മോട്ടറിന് ഒന്നുകിൽ ഒരു കവറ് ഫിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ വെള്ളം വീഴാത്ത തരത്തിലുള്ള സ്ഥലത്ത് വേണം മോട്ടർ ഫിറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ മോട്ടറ് കത്തി പോകാനായിട്ട് സാധ്യതയുണ്ട്